ഞങ്ങളുടെ സമൂഹത്തിൽ സ്പോർട്ട്സിന്റെ പങ്ക് വളരെ മികച്ച ഒന്നു തന്നെയാണ് കാരണം സമൂഹത്തിന് ഒറ്റകെട്ടായി നില്ക്കാന് വേണ്ടി വളരെ അധികം സ്വാധീനം സ്പോര്ട്സ് ചെലുത്തുന്നുണ്ട് ഫുട് ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടു പോകാനും ഒരുമിച്ച് നിര്ത്തുവാനും പരസ്പര സഹകരണത്തിനും എല്ലാറ്റിനും ഈ കായിക വിനോദങ്ങള് സഹായിക്കുന്നുണ്ട് കാരണം ഒരു ഫുട് ബോൾ കളിയിലൂടെ പരസ്പരമുള്ള വിശ്വാസത്തിനും കൂടിച്ചേരലിനും എല്ലാറ്റിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്ക് ആളുകള് തമ്മിലുള്ള പരസ്പരമായ സ്നേഹത്തിനും ഈ സ്പോര്ട്ട്സ് വഴി വെയ്ക്കുന്നുണ്ട്